ഹലോ ആ പറയു

ഇതാരാണ് എവിടെയാണ് സ്ഥലം മാഡം ആണോ ആ എന്താ വേണ്ടത് മാഡം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അൽഫാമും മന്തിയും ബ്രോസ്റ്റ് നെയ്ച്ചോറ് ബീഫുണ്ട് ചിക്കനുണ്ട് എത്തിച്ചുതരും മാഡം രാമനാട്ടുകരയെവിടെയാണ് ടൗണിൽ എത്തീട്ട് മാഡത്തെ വിളിച്ചാൽമതിയോ ഈ നമ്പറിൽ വിളിച്ചാൽമതിയില്ലേ ഓക്കേ മാഡം പിന്നെ എവിടെയാണ് ഷോപ്പിലാണോ കൊടുക്കണ്ടത് അതോ ടൗണിൽതന്നെയാണോ നിങ്ങളുടെ വീട് ആ മാഡം ഞങ്ങൾ ബൈക്കിലാണ് ഡെലിവറി ചെയുന്നത് ഡെലിവറി ഡെലിവെറിയൊക്കെ അവൈലബിളാണ് ഡെലിവെറിയ്ക്ക് വേറെ പേയ്മെന്റോന്നുമില്ല ആ നെയ്ചോറും നെയ്ച്ചോറ് എത്രേൻ്റെയാ വേണ്ടത് ആ അരക്ക് നൂറ്റിയെൺപത് രൂപയാണ് ആ ചിക്കൻക്കറിയും നെയ്ച്ചോറും കൂടിയിട്ട് ആ ഒരുകിലോന്ന് ആണെങ്കിൽ ഇരുനൂറ് രൂപയാണ് മാഡം നിങ്ങൾക്കേതാണ് വേണ്ടത് ഒരു കില്ലോന്നാണല്ലേ മാഡം ആ ഞങ്ങൾക്കിവിടെ വേറെയും പൊറോട്ടയും അൽഫാമും ബ്രോസ്റ്റുമൊക്കെ അവൈലബിളാണ് മുന്നുറ്റിതൊന്നൂറ്റിയെൺപതാണ് ബ്രോസ്റ്റ് ഒരു ബോക്സ് ബ്രോസ്റ്റിന് വരുന്നത് മാഡത്തിനിപ്പോൾ വേണ്ടത് നെയ്ച്ചോറും ചിക്കൻകറിയാണ് വേണ്ടത് അല്ലെ മാഡം ആ ആ ഈ നമ്പറിൽ വിളിച്ചാൽ കിട്ടത്തില്ലേ മാഡത്തിനെ ഓക്കേ മാഡം താങ്ക്യൂ